ഹലോ മാം കേൾക്കുന്നുണ്ടോ ആ ലക്ഷ്മി മാമല്ലേ ഞാൻ ലിറ്റിൽ ഫ്ളവർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന മാമിൻ്റെ ക്ലാസ്സിൽ പ്ലസ് ടൂൽ പഠിക്കുന്ന അശ്വതീടെ അമ്മയാണ് ഷീജയാണ് ഞാനെന്തിനാണ് വിളിച്ചതെന്നുവെച്ചുകഴിഞ്ഞാൽ മാം എൻ്റെ മോൾക്ക് ഒരാഴ്ചത്തെയൊരു ലീവ് വേണാമായിരുന്നു അപ്പോൾ അത് ചോദിക്കാൻവേണ്ടി വിളിച്ചതാണ് ഞങ്ങൾ ഫാമിലീലൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് ഒരു കല്യാണമുണ്ട് അപ്പോൾ ഒരാഴ്ചത്തെ പരിപാടിയാണത് അപ്പോൾ ആ ഒരാഴ്ച്ചത്തെ ലീവ് തരുവോന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് ആ ഓക്കെ മാം അതെനിക്ക് മനസിലാകും കാരണെന്താന്നുവെച്ചഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നറിയാം അടുത്തമാസം എക്സാമാണ് അപ്പോൾ അവൾക്ക് പഠിക്കാനൊത്തിരിയിണ്ടെന്നറിയാം പക്ഷേ എന്താ പ്രശ്നന്നുവെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലീലെ അവസാനത്തെ കല്യാണമാണ് ഇതുകഴിഞ്ഞാൽ വേറെ പരിപാടികളും ഫങ്ഷനൊന്നും വരാനില്ല ഏറ്റോം അവസാനത്തെ പരിപാടിയാണ് മാത്രമല്ല എൻ്റെ അടുത്ത കസിൻ്റെ കല്യാണമാണ് അവളുടെ വല്യമ്മേടെ മോളുടെ കല്യാണമാണ് അപ്പം അവൾക്ക് വരണംന്നു ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ ഒരാഴ്ച നീണ്ട പരിപാടിയുണ്ട് അപ്പോൾ അതിന് പോ പോകാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര അവൾക്ക് വിഷമമായിരിക്കും അവളത്രേം ആഗ്രഹിച്ച ഒരു കല്യാണമാണ് അതുകൊണ്ട് അതിനൊരു ലീവ് തരുവോന്നറിയാൻ വേണ്ടീട്ടാണ് വിളിച്ചത് ഒരാഴ്ച മതി മാം മാം ഈയാഴ്ച കുറെ ക്ലാസ് ക്ലാസ് നടക്കുന്നുണ്ടോ കുറെ ക്ലാസ് നടക്കുന്നുണ്ടോ ഈയാഴ്ച അതെ മാം ഫെബ്രുവരി പന്ത്രണ്ടിനാണ് കല്യാണം അപ്പോൾ അവിടുന്നൊരാഴ്ചത്തേക്കുള്ള ലീവാണ് വേണ്ടത് അപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ആഴ്ച തന്നുകഴിഞ്ഞാൽ അവളൊറ്റക്ക് പഠിച്ചോളാംന്നൊക്കെയാണ് പറയുന്നത് വന്നിട്ട് ഇപ്പൊതന്നുകഴിഞ്ഞാൽ നോട്ട്സ് ആയാലും ബാക്കി പ്രോബ്ലെംസായാലുമൊക്കെ ചെയ്യിപ്പിച്ചതൊക്കെ അവളൊന്നു ചെയ്തുനോക്കിയാൽ മതിയല്ലോ അതുപോലെ നോട്സ് കിട്ടാണെങ്കിൽ അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെടുത്ത് പറഞ്ഞിട്ട് അയച്ചുതരാൻ പറഞ്ഞാൽ അവളൊറ്റക്ക് പഠിച്ചോട്ടെ എന്നിട്ട് ഒരാഴ്ച്ച ശേഷം ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ മിസ്സിനെക്കണ്ട് മനസിലാക്കുവോ അല്ലേൽ ചോദിക്കുവോ ചെയ്താൽ പോരേ ആണ് കുറെ പരിപാടികളും പരിപാടികളും ഡാൻസും പാട്ടുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം ബന്ധുക്കളെല്ലാവരും വരുന്നുണ്ട് അപ്പം ഇവളും ഇവളുടെ ബാക്കി കസിൻസുമൊക്കെക്കൂടി കുറെ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം മാം മൂന്ന് മൂന്നുദിവസം മതി എങ്ങനെയാച്ചാൽ കല്യാണത്തിൻ്റെ ദിവസോം രണ്ട് പിറ്റേന്നത്തെ രണ്ടുദിവസോം മതി അങ്ങനെയാകുമ്പോൾ ഇവൾ

ഓക്കെ ഓക്കേ മാം അപ്പോൾ മൂന്നുദിവസം മതി അതുവന്നുകഴിഞ്ഞാൽ അവൾ ബാക്കി എടുത്ത പോർഷൻസൊക്കെ ഒന്ന് ചോദിച്ചു മനസിലാക്കിക്കോട്ടെ സ്റ്റാഫ് റൂമിൽ വന്നാലും ടീച്ചേഴ്സിൻ്റെ അടുത്ത് വന്നാലുമൊക്കെ അവർ പറഞ്ഞുകൊടുക്കുമല്ലോ എടുത്ത ഭാഗങ്ങൾ ഓക്കെ ഞാൻ ലെറ്ററെഴുതിവിടാം പിന്നെ ഈ വർഷം വേറെയിനിയിപ്പോൾ ഒരുമാസം കൂടിയല്ലേ ഉള്ളൂ വേറെ ലീവൊന്നും വരാണ്ട് നോക്കാം അതുപോരെ ആ ഇല്ല ഇല്ല ഈ മൂന്നുലീവോടെ എല്ലാലീവും ഏകദേശം ക്ലോസ് ചെയ്യാം വേറെ ലീവൊന്നും എടുക്കേണ്ടാത്ത വിധത്തിൽ ഞാൻ എന്തായാലും സെറ്റ് ചെയ്യാം പിന്നെ നാളെ ലെറ്ററും കൊടുത്തുവിടാം ഓക്കേ താങ്ക് യൂ മാം നന്ദി മാം